നമ്മുടെ ഭാഷ മലയാളമാണ് മലയാള ഭാഷയെന്ന് പറയുമ്പോൾ അതൊരു നമ്മുടെ കേരളത്തിൻ്റെ ഒരു തനതായ ഭാഷ അത് ഇന്നത്തെ തലമുറ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന പക്ഷേ എത്ര ഇംഗ്ലീഷ് പഠിച്ചാലും നമ്മുടെ നാടിൻ്റെ സംസ്കാരം നിലനിർത്തുക എന്നുള്ള മലയാളം ഭാഷ തന്നെയാണ് പല സ്ഥലങ്ങളിലും പല രീതികളിലാണ് മലയാളം സംസാരിക്കുക പല രീതിയിൽ പോവും ചിലരുടെ നീട്ടി ചില സ്ഥലങ്ങളിൽ നീട്ടി ചില കുറുകി ചില സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ കോട്ടയം ഭാഷയാണ് ഏറ്റവും നല്ല ഭാഷ മലയാളം ഭാഷ മലയാളം മലയാളം പറയുക ഇന്നത്തെ തലമുറയുടെ മലയാളം ഭാഷ നിർബന്ധമായിട്ട് അത് പഠിപ്പിച്ചു മലയാളം സംസാരിക്കാനുള്ള ഏത് ഇംഗ്ലീഷ് അറിയാവുന്ന പിള്ളേരായാലും മലയാളം പറഞ്ഞു പഠിപ്പിക്കാനായിട്ട് അവരെ കാരണവന്മാർ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് മലയാളം ഭാഷയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മലയാള ഭാഷയാണ് മലയാളം സംസാരിക്കുന്നതിനോടാണ് എനിക്ക് എൻ്റെ മക്കളോട് ഞാൻ മലയാളം തന്നെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്